എനിക്കറിയാവുന്ന ചില്ലറ കച്ചവടങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള പലചരക്ക് കടകളുണ്ട് അങ്ങനെ പലചരക്ക് കടെൻ്റെ കൂടെ പച്ചക്കറികൾ വിൽക്കുന്ന കടകളുണ്ട് പിന്നെ അവയുടെ വിലയ്ക്ക് വന്ന മാറ്റമെന്നു പറയുമ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് വിലയ്ക്കും മാറ്റങ്ങൾ വരുന്നുണ്ട് ചില സമയത്ത് കർഷകരെ അവരുടെ പച്ചക്കറികൾക്ക് വില ഒരുപാട് കൂടുന്നുണ്ട് ഈ ഇടക്ക് തന്നെ തക്കാളിയുടെ വില ഒരുപാട് കൂടിയിരുന്നു അങ്ങനെ പച്ചക്കറിയൊക്കെ ഒരുപാട് മാറ്റമുണ്ട് കടകളിലുള്ള വിലകളല്ല നമ്മൾ വേറെ പല സ്ഥലങ്ങളിലും പോണ സമയത്ത് ഉണ്ടാവാ അങ്ങനെ പച്ചക്കറിയുടെ വിലകൾ വലിയ മാറ്റം തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഈ കുറച്ച് കാലമായി ഓൺലൈൻ ഷോപ്പിംഗിനു ഒരുപാട് പ്രാധാന്യം നൽകുന്നൊരു സമൂഹമായിട്ടാണ് നമ്മൾ മാറണത് ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ച് അഭിപ്രായം എന്നു പറയുമ്പോൾ ആ നല്ല അഭിപ്രായം തന്നെയാണ് കാരണം നമുക്ക് നേരിട്ട് വാങ്ങുന്നതിനേക്കാൾ സാധനത്തിനെ നമുക്ക് കുറച്ചും കൂടെ ലാഭത്തോടെ നമുക്ക് ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും അത് എല്ലാ പ്രോഡക്റ്റും എല്ലാ വസ്തുക്കളും അങ്ങനെത്തന്നെയാണ് നല്ല വശങ്ങളെന്നു പറയുമ്പോൾ നമുക്ക് മിതമായ നിരക്കിൽ നമുക്ക് കിട്ടും പിന്നെ ഒരുപാട് നമുക്ക് നമ്മൾ കടയിൽ പോയി വാങ്ങുന്നതിനേക്കാൾ നമുക്ക് കുറച്ചും കൂടി നല്ല നല്ല എന്താ പറയുക നല്ല നല്ല മെറ്റി നല്ല നല്ല വെറൈറ്റിസ് ഓഫ് പലതിൻ്റെ വെറൈറ്റിസും പല കളേഴ്സിൽ ഉള്ളതും കാണാൻ പറ്റും അതൊരിക്കലും എനിക്ക് തോന്നിയത് അതെനിക്ക് കടകളിൽ പോയിട്ട് ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് കുറേ നമുക്ക് വെറൈറ്റിസ് കാണാൻ പറ്റും വില കുറവായിരിക്കും അതുപോലെതന്നെ നമുക്ക് കടകളിൽ പോയാൽക്കൂടി നമുക്ക് തിരിച്ച് നമുക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ മിക്കവാറും കിട്ടാറില്ല പക്ഷെ ഓൺലൈനിൽ ആകുന്ന സമയത്ത് നമുക്ക് അത് റിട്ടേൺ കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് നമുക്കത് രണ്ടൂസം കഴിഞ്ഞ റിട്ടേൺ കൊടുക്കാം പക്ഷെ കടകളിൽ പോണ സമയത്ത് ഒരൂസം വൈകിയാൽത്തന്നെ അവർ റിട്ടേൺ എടുക്കാൻ ഇല്ല അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് സമയ ലാഭം അതുപോലെത്തന്നെ പൈസ ലാഭം എന്നൊക്കെ പറയണ പോലെ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗിനു പറയുമ്പോൾ ഒരുപാട് നല്ല വശങ്ങളുണ്ട് ചീത്തവശങ്ങളെന്നു പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വല്ല ഡാമേജ് ആയിട്ടുള്ള എവിടേങ്കിലും നമുക്ക് ഡാമേജായിട്ടുള്ളൊരു ചിലപ്പോൾ അതായിരിക്കും കിട്ടുക നമുക്ക് മെറ്റിരിയൽ നമ്മൾ എടുക്കണ പ്രോഡക്റ്റ് ചിലപ്പോൾ ഡാമേജ് തരാ പിന്നെ ഓൺലൈൻ എന്നൊക്കെ വാങ്ങുന്നതുകൊണ്ട് മിക്കവാറും എല്ലാവരുടെ ഒരു ചിന്ത പറയുമ്പോൾ നല്ല പ്രോഡക്റ്റായിരിക്കും അതുകൊണ്ട് അധികം ശ്രദ്ധിക്കില്ല എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ എല്ലാ എല്ലാ വശങ്ങളും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ചിലപ്പോൾ വല്ല ഡാമേജ് ഉള്ള പ്രോഡക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചില അവസരങ്ങളിൽ ഡാമേജായിട്ടുള്ളത് കിട്ടും പിന്നെ നമുക്ക് റീഫണ്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ടല്ലോ അപ്പോൾ നമുക്ക് പൈസ നമുക്ക് വേണ്ടായെന്ന് വെച്ചാലും റീഫണ്ട് ചെയ്യാം ദൂഷ്യ വശങ്ങൾ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നാലും ദൂഷ്യവശങ്ങൾ കുറവാണ് ഓൺലൈനിൽ